ആ ചേച്ചി ആ ചേച്ചി പിന്നെ ഞങ്ങളുടെ ഇവിടെ തലശ്ശേരി ഫോർട്ട് കാണാൻ വേണ്ടി വന്നതാണെ അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ എത്തിയിട്ട് ഇപ്പോൾ എങ്ങോട്ടാണ് പോകേണ്ടത് എന്ന് അറിയില്ല ഇതില് ഇപ്പോൾ ഇവിടെ അടുത്താണ് ഞങ്ങള് ഫോണില് കാണിക്കുന്നത് അപ്പോൾ എങ്ങോട്ടാണ് ഒന്നു പറയുമോ ആ അപ്പോൾ ഇവിടന്ന് നടന്ന് പോകുന്നതേ ഉള്ളൂ

പെട്ടെന്ന് എത്തുമോ ഓ അത് ശരി ശരി ആ പിന്നെ ചേച്ചി ഞങ്ങൾ ഇവിടെ തലശ്ശേരി ഇവിടെ നല്ല കടൽ മീനിൻ്റെ ഫുഡ് ഒക്കെ കിട്ടുമെന്ന് പറയുന്നത് കേട്ടു ആ അതും കൂടെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ആയിരുന്നു ഇങ്ങോട്ടേക്ക് വന്നത് ഫോർട്ട് കാണാനും പിന്നെ ഇതും കൂടെ കഴിക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് വന്നത് അപ്പോൾ ഇവിടെ നല്ല കടൽ മീനിൻ്റെ ഭക്ഷണം കിട്ടുന്ന ഏതെങ്കിലും ഹോട്ടൽ ഉണ്ടോ അതേ കോട്ട കണ്ടിട്ടു പോകാമെന്നാണ് വിചാരിക്കുന്നത് ഞങ്ങൾക്ക് എന്തായാലും നേരെ ഇനി ഇപ്പം കോട്ട കണ്ടു ഭക്ഷണം കഴിച്ച് നേരെ നാട്ടിലേക്ക് പോകാമെന്നാണ് വിചാരിക്കുന്നത് ആ ആണോ നല്ല നല്ല ഫുഡ് ആണോ കൊഞ്ച് ഒക്കെ കിട്ടുമോ ആ ചേച്ചി അവിടെ ഫ്രൈ മാത്രം ഉള്ളൂ കറിയും അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ എല്ലാം അവിടെ ഉണ്ടാകുമല്ലെ മ് ബിരിയാണി ഒക്കെ കിട്ടോ കടൽ മീ മീനിൻ്റെ അല്ലേ ആ വേറെ അത് തന്നെ ആണോ ഏറ്റവും നല്ലത് വേറെ ഏതെങ്കിലും നല്ലത് ഉണ്ടാകുമോ

ഫുഡ് കഴിച്ചിട്ട് ഇനി കോട്ട കാണാമെന്ന് വിചാരിക്കുന്നു